ഹലോ യാ പറയു ഹാലോ കട തന്നെ ഓ തന്നെ തന്നെ തന്നെ ഹോൾസെയില് കട വൺ കെജിക്ക് തെർട്ടി മുപ്പതു രൂപയാണ് വൺ കെജിക്ക് അപ്പോൾ ട്വൻറ്റി കെജി എന്ന് പറയുമ്പോൾ ഒരു അറുന്നൂർ രൂപ വരും

ആ ചെറിയ ഒരു സബ്സിഡി സബ്സിഡി ഉണ്ടാക്കുക കുറച്ചു അല്ലാതെ നമ്മൾ ആ അതെല്ലാം നമ്മൾ ഹോൾസെയില് മാർക്കറ്റിൽ നിന്നു എടുക്കുന്നത് അല്ലെ വണ്ടി വരുന്നത് അത് തണ്ണെ കുറച്ചേ ഉള്ളു അത് ആ അത് കുറച്ചെ ഉള്ളു നമ്മൾ വാങ്ങിക്കുന്നത് എല്ലാം ഹോൾസെയില് വരുന്ന വണ്ടി നിന്ന് വാങ്ങുന്നതേ ഉള്ളു അതിന് അനുസരിച്ചിട്ട് നമ്മൾ വാടകൻ്റെതും കടയുടെ വാടകയും നമ്മൾക്ക് അതിൻ്റെ ചെറിയകൂലി വല്ല തുക കൂടുതലും കുറച്ച് കൂട്ടി യ്ട്ട നമ്മ എടുക്കും ആ കൂടുതൽ എടുക്കുമ്പോൾ കൂടുതൽ വാങ്ങുമ്പോൾ കുറച്ച് നമ്മൾക്ക് അതിനെ ഡിസ്കൗണ്ട് ഉണ്ടാക്കും ഉഇണ്ടാക്കി കിട്ടാനും അത് ഇങ്ങനെ കുഴപ്പമില്ല നമ്മൾ നമ്മൾ അതിന് കുറച്ചു കുറക്കാം കുറക്കാം നമ്മൾ മുപ്പത് വേണ്ടത് ഇരുപത്തി ആറ് രൂപമാക്കാം ഒരു ഇരുപത്തി മൂന്നു രൂപമാക്കം അതെ അതെ മുപ്പത് അതിനെ ഒരു ഇരുപത്തിയേഴ് ആക്കാം മൂന്നു റുപ്യാ അതിൽ സബ്സിഡി നൽകിയിട്ട് അല്ല അല്ല നമ്മൾ വാങ്ങുന്നതെ നമ്മൾ വാങ്ങുന്നത് ഇരുപത്തി നാലു രൂപക്ക് ഇരുപത്തി നാലു രൂപക്ക് വാങ്ങുന്നത് അതിൽ വണ്ടി അതിൽ കടയുടെ നമ്മൾക്ക് വാടക വേണം റ്റാക്സ് എടുക്കണം ജിഎസ്റ്റി എടുക്കണം എല്ലാത്തിനും നമ്മുക്ക് അതിൽ തന്നെ കൂട്ടിയിട്ട് അടക്കേണ്ടേ പിന്നെ അതിൽ നമ്മൾക്ക് ചെറിയ ഒരു ഉണ്ടാകും അല്ല അന്നേരവും നമ്മൾ പിന്നേയും ഇങ്ങനെ കൂടിയിട്ട് കുറക്കാം നമ്മൾക്ക് മാർക്കറ്റിൽ എങ്ങനെ വരുന്നോ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത് അവിടെ നിന്ന് കിട്ടുന്ന ഒരിച്ചിരി ഇച്ചിരി ആ ആ ആ അ ശരി